എൻ്റെ രണ്ടാമത്തെ ഒരു പ്രൊഡക്ട് എന്ന് പറയുന്നത് ഒരു ട്രിമ്മറാണ് നോവയുടെ ഒരു ട്രിമ്മറായിരുന്നു ഞാൻ വാങ്ങിച്ചിരുന്നത് എനിക്കിത് വളരെയധികം നെഗറ്റീവ് എക്സ്പീരിയൻസാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത് ഇതിലെ നെഗറ്റീവ് എക്സ്പീരിയൻസ് ഉണ്ടാവാൻ കാരണം ഇത് പെട്ടന്നു തന്നെ കമ്പ്ലൈന്റ് ആയി പിന്നെ എനിക്ക് യാതൊരു വിധ ഉപയോഗവും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ പ്രധാന നെഗറ്റിവെന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ചാർജിങ്ങ് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ്ങ് വളരെ മോശമായിരുന്നു പെട്ടന്ന് തന്നെ ചാർജ് കഴിയും നമുക്ക് നേരാവണ്ണം ഉപയോഗിക്കാൻ പോലും പറ്റില്ല ഒരു കുറച്ച് ഒരു കുറച്ച് സമയം ഉപയോഗിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ചാർജ് പെട്ടന്ന് തീരും വീണ്ടും വീണ്ടും ചാർജ് ചെയ്യേണ്ടതായി വരും പിന്നെ രണ്ടാമതുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസ് എന്തെന്ന് വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി ക്വാളിറ്റി വളരെയധികം കുറവാണ് നമ്മള് കൊടുക്കുന്ന പൈസ അതിനുള്ള ഒരു മുതല് ഇതിലുണ്ടായിരുന്നില്ല ക്വാളിറ്റി വളരെ കുറവായിരുന്നു പിന്നെ അടുത്തൊരു നെഗറ്റീവെന്തെന്നു വെച്ചാൽ ഇതിൻ്റെ പെർഫെക്ഷൻ ട്രിം ചെയ്യുമ്പോൾ യാതൊരു വിധ പെർഫെക്ഷനും ഉണ്ടായിരുന്നില്ല അതിന് ഒരു വൃത്തികെട്ട ഒര് എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ട്രിമ്മറിന് എനിക്ക് ഉണ്ടായിരുന്നത്